ചുവട് തെറ്റാതെ കൃത്യമായി ചെയ്യുന്ന എല്ലാവരും നർത്തകികളാണ് അതേറ്റവും ഭംഗിയായി നല്ല ഇതോടെ ചെയ്യുന്നതെല്ലാം നല്ല ഡാൻസേഴ്സാണ് അതിൽ നിന്ന് ഒരു മികച്ച നർത്തകി എന്ന് പറയുന്നത് ഇപ്പോള് നമ്മള് നമ്മുടെ ഡേ ടു ഡേ ലൈഫില് നമ്മള് ചോദിക്കില്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരുന്ന നല്ലൊരു നർത്തകി ആരാണ് അല്ലങ്കിൽ ഒരു ഡാൻസറെന്ന് പറയുമ്പോള് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യം ഓടിവരുന്നത് ആരാണ് അപ്പോള് നമ്മള് ഒരുപാട് നർത്തകിമാരുടെ പേര് പറയും അല്ലേ ലക്ഷ്മി ഗോപാലസ്വാമി പറയും ആശാ ശരത്ത് പറയും ശോഭന പറയും നവ്യാ നായര് പറയും അല്ലെങ്കിൽ മഞ്ജു വാര്യർ പറയും ഇങ്ങനെ ഒരുപാട് മികച്ച നർത്തകി ഡാൻസേഴ്സിൻ്റെ പേര് നമ്മള് പറയാറുണ്ട് അതിൻറ്റൊരു എങ്ങനെ ഇതിനെ നമ്മള് അല്ലെങ്കിൽ വേറിട്ടല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാറ്റുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത് അവരുടെ ആ ഒരു രീതിയാണ് എങ്ങനെ അവരുടെ ഒരു ഡാൻസ് അല്ലങ്കിൽ സ്റ്റേജിലവരുടെ പെർഫോമൻസ് എങ്ങനെ നമ്മളെ എങ്ങനെ അഫ്ഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിലേക്കതെങ്ങനെ ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളതിനെ ബേസെയ്തിട്ടാണ് ഈ പറഞ്ഞൊരു നല്ല നർത്തകി അല്ലങ്കിൽ മികച്ച നർത്തകിയുണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മള് ഈ സ്റ്റേജിലൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട് ഒരു മികച്ച നർത്തകി അല്ല ഞാനൊരിക്കലും പക്ഷെ ഒരു നല്ല നർത്തകിയാണ് അതിൽ നിന്നൊരു മികച്ച നർത്തകിയാകാൻ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിലൊരു മികച്ച നർത്തകിയെ വെട്ടി നിർത്തുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒഫ്കോഴ്സ് അവരുടെ ആ ഒരു ഒരു എന്താ പറയുന്നത് ആ ഒരു നൃത്തം എന്നു പറയുന്ന ആ ഒരു കലയെ അവര് ഏറ്റെടുത്തിരിക്കുന്നൊരു ജീവിത തപസ്യായിട്ടവര് ഏറ്റെടുത്തിരിക്കുന്നത് തന്നെയാണ് ഒരുപാട് പ്രാക്ടീസിലൂടെ ഒരുപാട് പ്രയത്നത്തിലൂടെ ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഒരു കാര്യത്തെ എങ്ങനെ അവര് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോള് ഒരു വികാരമാകാം അല്ലെങ്കിലൊരു കഥയാവാം അതിനെ എത്ര ഭംഗിയായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയില് എങ്ങനെ അവതരിപ്പിക്കുന്നു എത്ര ശാലീനതയോടെ അവര് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു മികച്ച നർത്തകിക്ക് വേണ്ടത് അവരുടെ ആ ഒരു നമ്മള് നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ കണ്ണെത്താത്തിടത്ത് കയ്യെത്തുന്നിടത്ത് നമ്മുടെ കണ്ണെത്തണം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ മെയ്വഴക്കം അവരുടെ കൈകള് സഞ്ചരിക്കുന്ന രീതി അവരുടെ കണ്ണുകള് മൂവെയ്യുന്ന രീതി അവരുടെ ആ ഒരു പ്രസന്നത അല്ലങ്കിലാ ഒരു വികാരത്തെ അവരതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് കൺവെ ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് എപ്പോഴും ഒരു മികച്ച നർത്തകിയില് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ പാട്ടുകാരോട് നമ്മള് പറയില്ലേ സാധകം ചെയ്തെപ്പോഴും സ്വരം ശുദ്ധിയായിട്ട് വെക്കുമെന്ന് പറയുന്നത് പോലെ നർത്തകിമാർക്കേറ്റവും വേണ്ടത് മെയ്വഴക്കമാണ് അവരത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ അവരുടെ ഡയറ്റിങ്ങിലൂടെ അല്ലെങ്കിലവരുടെ ജീവിത ക്രമരീതിയിലൂടെ അവര് അവരുടെ മെയ്വഴക്കം അവര് കാത്ത് സൂക്ഷിക്കുന്നു അതുപോലെതന്നെ അവരുടെ കയ്യും കാലും കണ്ണുമെല്ലാം ഒരേ രീതിയിൽ ഒരേ മനസ്സും എല്ലാം ഒരേ രീതിയില് സഞ്ചരിക്കണം അതാണെപ്പോഴും അവരുടെ സ്റ്റേജ് പെർഫോമൻസില് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യം അപ്പോള് ഇതാണെപ്പോഴും ഒരു മികച്ച നർത്തകിയില് നമ്മള് കാണുന്നത് അവരുടെ ആ ഒരു സ്റ്റേജ് പ്രെസെൻസ് അവരുടെ മനസ്സിൻ്റെ ആ ഒരു പ്രെസെൻസാണെപ്പോഴും നമ്മള് ഒരു മികച്ച നർത്തകിയില് മറ്റുള്ള നർത്തകികളിൽ നിന്നൊരു മികച്ച നർത്തകിയെ വേറിട്ട് നിർത്തുന്ന കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു